നമ്മുടെ കേരളത്തിലെ കേരള കാർഷിക മേഖലക്ക് സർക്കാർ നല്ല ധാരാളം ഒട്ടനവധി പദ്ധതികൾ കൊണ്ട് വരുന്നുണ്ട് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ അതുപോലെ തന്നെ കർഷകർക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുന്നുവുണ്ട് സബ്സിഡിയും അതുപോലെ തന്നെ വളങ്ങളും പിന്നെ നമുക്ക് ആയിട്ടുള്ള എല്ലാ ഇതും നമ്മുടെ കാർഷിക രംഗത്തെല്ലാം നമ്മുടെ കർഷകർക്ക് ഇത് ഒരുമിച്ച് കൊണ്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ സർക്കാർ അതുപോലെ തന്നെ കുറച്ചും കൂടെ അതായത് ഈ ഈ നമ്മുടെ ഈ കാർഷിക വിളകൾ നശിപ്പിക്കുന്ന പന്നികൾ അതുപോലെ ഉള്ളതിനെ തുരത്താനും ഇപ്പോൾ നമ്മുടെ ഈ കാർഷിക രംഗത്ത് പറ്റുന്നുണ്ട് അതാണ് ഇതിലും വലിയ നേട്ടം പിന്നെ നമ്മുടെ നമ്മുടെ അടുത്തുള്ള വില്ലേജ് ഓഫീസറ്കളും കാർഷിക മന്ത്രാലയവുവെല്ലാം നമുക്ക് അതികഠിനമായ സപ്പോട്ടും കാര്യങ്ങളുവെല്ലാം തരുന്നുവുണ്ട്